എല്ലാവരും വ്യത്യസ്ത രീതിയിലാണ് അവരവരുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താറുള്ളത് അതുപോലെ ഞാനും ഒരു വ്യത്യസ്ത കാര്യങ്ങളിലാണ് എനിക്ക് സന്തോഷം കണ്ടെത്താറുള്ളത് എല്ലാവരും സന്തോഷിക്കുന്ന കാര്യങ്ങളിലാവണമെന്നില്ല ഞാൻ സന്തോഷിക്കുന്നത് അതേപോലെ ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യങ്ങളിലാവണമെന്നില്ല മറ്റുള്ളവർ സന്തോഷിക്കുന്നത് ഞാൻ പൊതുവെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് ഒരുപാട് യാത്ര ചെയ്യുന്നതിൽ ഞാൻ വളരെ അധികം സന്തോഷം കണ്ടെത്താറുണ്ട് ഒരുപാടു ദൂരമുള്ള ഒരുപാട് നേരം സഞ്ചരിക്കുന്ന ഓരോ കാഴ്ചകൾ കാണുന്ന ഒരുപാട് ദൂരമുള്ളൊരു യാത്ര പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനെന്നും യാത്ര ചെയ്യുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് അതേപോലെ ഞാൻ വായിക്കുന്നുണ്ട് റീഡ് ചെയ്യാറുണ്ട് ബുക്ക് റീഡ് ചെയ്യുന്നത് അത് എപ്പോഴും ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന ടൈമിന് എപ്പോഴും ഞാൻ ബുക്കുകൾ വായിക്കാറുണ്ട് പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട് അതിലും ഞാൻ സന്തോഷം കണ്ടെത്താറുണ്ട് അതാണ്